നോക്കിയെ ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിനിട്ട ചുരിദാർ ഇജ് കണ്ടിരുന്നോ ഒരു പച്ചയും മഞ്ഞയും പോലത്തെ ചുരിദാറ് അതിട്ടിട്ട് നല്ല സുഖമുണ്ട് ചൂടത്തൊക്കെ ഇടാൻ പറ്റും പിന്നെ എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് കാണാനെന്ന് നല്ല തിളങ്ങുന്ന തുണിയാണ് ആ ഷാള് പൊന്തിയൊക്കെ നിൽക്കുന്ന തുണിയാണ് തലയിൽ ഒട്ടിയൊന്നും നിൽക്കുകയില്ല അതുകൊണ്ട് തന്നെ കാണാന് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു ആ ഷാളിൻ്റെ വക്കിൽ കൂടെയൊക്കെ കുറെ മുത്തുകളൊക്കെ തുന്നിയാണ് അത് കണ്ടപ്പം തന്നെ കുറെ ആൾക്കാര് പറഞ്ഞു പുതിയ പെണ്ണിൻ്റെ ഷാളിൻ്റെ പോലെ ഉണ്ടെന്ന് പിന്നെ ചുരിദാർ താഴെ വരേ ഇറക്കമുണ്ട് പക്ഷെ നടക്കുമ്പളൊന്നും തട്ടിയൊന്നും വീഴുകയൊന്നുമില്ല കുറെ കല്ലും മുത്തും വരുന്നതാണ് അതിന്റെ ഒരു വർക്ക് പിന്നെ രണ്ട് കയ്യിന്റെ മേലും